ഹലോ ജെനേഷ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റല്ലേ അവിടെയിപ്പോൾ എന്തിന്റെയെങ്കിലും ഓഫറ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്തിൻ്റെയൊക്കെയാ ഓഫർ ഉള്ളത്

ടു റു അതായത് സാധാരണ ടു അതായത് വെറും ടൂ റുപ്പീസിനാണോ നിങ്ങൾ കൊടുക്കുന്നത് വൺ കേക്കിനോ അഡീഷണൽ ആ അതിനെന്തേലും കാ അവിടെ നിങ്ങളുടെ കാർഡ് അങ്ങനെന്തെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ കാർഡ് അതെടുത്ത് കഴിഞ്ഞാലാണ് ഓഫറ് കിട്ടത്തുള്ളല്ലേ ആ രണ്ടിനും ആ ഓക്കെ ഓക്കെ പിന്നെ വേറെന്തിനൊക്കെയാണ് ഉള്ളത്

ആ ആ ഓക്കെ ഓക്കെ ആ ഇനി ഇപ്പോൾ തക്കാളിക്കൊക്കെ പുറമേ നൂറ് രൂപയാണ് അവിടെ എത്രയാണ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പിസല്ലേ ആ നമ്മൾ കുറെ എടുക്കണോ അതോ നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ചില്ലറ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഓഫറ് കൊടുക്കുന്നല്ലേ അപ്പോൾ നമ്മൾ വലിയ കുറെ നമ്മളിപ്പോൾ കല്യാണ പരിപാടി പരിപാടിക്കൊക്കെ ആ ഈ ഓഫർ ഉണ്ടാവില്ല ആ ഓക്കെ ഓക്കെ പിന്നെ ആ എനിക്ക് മറ്റന്നാളൊരു ഇതുണ്ടായിരുന്നു ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി എടുക്കാൻ വേണ്ടീട്ടായിരുന്നു

എനിക്ക് തക്കാളി ഒരൂ കുറച്ച് വേണം ഒരു പത്ത് പതിനഞ്ച് കിലോന്റെ അടുത്ത് വേണം പിന്നെ ഉള്ളി ഉള്ളിക്കൊക്കെ എത്രയാണ് റേറ്റ് വരുന്നത് ട്വൻറ്റി സിക്സ് അല്ലെ ആ പിന്നെ പിന്നെ അ പിന്നെ നമുക്ക് റൈസ് ബിരിയാണി റൈസും വേണം സാധാരണ നമ്മുടെ സാധാരണ ചോറ് കൊടുക്കാനുള്ള റൈസില്ലേ മട്ട അരി

ഒരൂ റൈസ് ബിരിയാണി റൈസ് വലിയ ഫങ്ക്ഷൻ ഒന്നും അല്ല ചെറിയ രീതിയിലുള്ള ഫങ്ക്ഷനാ അപ്പം ഒരു മുപ്പത് നാൽപ്പത് അൻപത് കില്ലോന്റെ ഉണ്ടാവുമോ ഓക്കെ ഓക്കെ അങ്ങനെയാണേ അൻപത് കിലോന്റെ ഇരുപത്തഞ്ചിന്റെ രണ്ട് ചാക്കയിട്ടിറക്കിയാൽ മതി നമുക്ക് ഇരുപത്തഞ്ച് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടത്തെരാലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി ആണോ അതെ അതെ സാറിന് ഞാൻ നാളെ നാളെ എന്താണേലും വന്നിട്ട് ഞാൻ ലിസ്റ്റ് മൊത്തം അവിടെ കൊണ്ടന്ന് എടുത്തിട്ട് നമുക്ക് അതിനനുസരിച്ച് ബില്ല് ചെയ്യാലോ ആ ഓക്കെ എന്നാൽ ഞാൻ നാളെ വരാം എന്നാൽ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ